ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുതലായിട്ടും പോകാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും എനിക്ക് ലണ്ടനിലൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ഓസ്ട്രേലിയ അമേരിക്ക അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് എനിക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറും അവിടുത്തെ രീതികളുമൊക്കെ വേറെ തരത്തിലാണ് നമുക്ക് അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ അപ്പം നമുക്ക് ജോലിക്കാണെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്നായിരിക്കും കൂടുതലായിട്ടും ക്യാഷും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുക കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇവിടുത്തെ ഇത് പൈസ വെച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം അവിടെയാണ് കൂടുതലായിട്ടും ക്യാ ക്യാഷും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭിക്കുക പിന്നെ അവിടുത്തെ രീതികളൊക്കെ വേറെയാണ് നമുക്ക് ഇപ്പോൾ ഏത് പാതിരാത്രി നമുക്ക് വേണമെങ്കിലും ഇപ്പം ഒരു പെണ്ണിന് വേണമെങ്കിലും ഏത് പാതിരാത്രി ഇറങ്ങി നടക്കാം അങ്ങനത്തെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അവിടെ അവിടെ എല്ലാം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് സ്ഥലമാണ് പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കിപ്പോൾ എന്ത് സാധനമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വാങ്ങാൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം അങ്ങനത്തെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എനിക്ക് കൂടുതലായിട്ടും പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും എനിക്ക് പോകാൻ ആഗ്രഹമുള്ളത് ലണ്ടനിലേക്കാണ്